ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളെന്നു പറയുമ്പം സാംസ്കാരിക പാ പിന്നെ പാരമ്പര്യങ്ങളെന്നു പറയുമ്പം നമ്മൾ ക്രിസ്ത്യാനികളാണ് പണ്ട് മുതലേ നമ്മൾ ക്രിസ്തുമതത്തെ ആചരിച്ചു വരുന്നു പിന്നെ ഇപ്പോഴത്തെ തലമുറകൾ ദൈവത്തെ വിശ്വാസമില്ലാത്ത ഒരു തലമുറയായിട്ടാണ് വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലവർ ദൈവത്തെ വിശ്വസിക്കുന്നില്ല പക്ഷെ ദൈവമുണ്ടെന്നുള്ളൊരു സത്യമുണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോടു പറഞ്ഞാൽ അത് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല പിന്നെ പാരമ്പര്യങ്ങൾ നമ്മളൊക്കെ ദിവസവും പള്ളിയിൽ പോകുകയും പ്രാർത്ഥന നടത്തുകയൊക്കെ സന്ധ്യ പ്രാർത്ഥനകളൊക്കങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം ഒട്ടു മുക്കാലും വീടുകളിലതില്ലാത്തൊരു രീതിയാണ് വരുന്നത് പിന്നെ പിന്നെ മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് ഇന്ത്യ പിന്നെ ഏതൊക്കെ രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നു ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലെ സംസ്കാരങ്ങളും ഇന്ത്യയിലെ പല സംസ്കാര പല രാജ്യങ്ങളിലെ സംസ്കാരങ്ങളുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇന്ത്യ കേരളത്തിലെ സംസ്കാരമെന്നു പറയുമ്പം നമ്മളെല്ലാവരും ഐക്യപ്പെട്ട് ഓരോ മുസ്ലീങ്ങൾ ക്രിസ്ത്യൻസ് ഹിന്ദുക്കൾ അങ്ങനെ പല ജാതിക്കാരുണ്ട് അവരെല്ലാവരും തന്നെ ദൈവത്തെ വിശ്വസിക്കുകയും ഒട്ട് മുക്കാലും പേര് അവരുടേതായിട്ടാരാധനാലയങ്ങളിൽ പോകുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ നമ്മുടെ ഇവിടെ നിന്നു പോയിട്ടുള്ള വിദേശങ്ങളിലിപ്പം ജീവിക്കുന്ന ആൾക്കാർ പോലും പിന്നെ സം ഇത് വിശ്വാസങ്ങളുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകുന്നില്ല വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണവർ വരുന്നത് ഈയിടെ എനിക്കൊന്നു ലണ്ടനിൽ പോകാനായിട്ടിട വന്നു അവിടെ പള്ളിയിൽ പോലും ആൾക്കാരില്ലാത്ത പള്ളിയിൽ പോലും ഒട്ടു മുക്കാലും അടച്ചിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഞാൻ കണ്ടത് ഭയങ്കര സങ്കടം തോന്നുമതു കാണുമ്പം പിന്നെ ക്രിസ്ത്യൻസാണ് കൂടുതലും ഈ പണിയൊക്കെ കാണിക്കുന്നത് ഹിന്ദുക്കളെവിടെയെങ്കിലും അമ്പലമുണ്ടെങ്കിൽ അവരവിടെ പോകുകയും മുസ്ലിങ്ങളാണെങ്കിലും മോസ്ക്കിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിലും ഏറ്റവും പ്രധാനം പിന്നെ മുസ് ക്രിസ്ത്യൻസാണ് ഇങ്ങനെ ഇതിലൊക്കെ പിന്നെ പള്ളിയിൽ പോകാതെയും പ്രാർത്ഥന ഒന്നുമില്ലാതെയൊക്കെ ഇരിക്കുന്നത് ഇപ്പം ഈയിടെ ഞാൻ അവിടെ പോയപ്പം എൻ്റെ കൊച്ചിൻ്റടുത്ത് പോയതാണ് ലണ്ടനിലവിടെ ചെന്നു കഴിഞ്ഞപ്പം പറയുന്നത് ഇനിയുള്ള തലമുറക്കവർക്ക് കുട്ടികൾ വേണ്ടെന്നാണ് കുട്ടികളില്ലാതെ ഇന്നിഷ്ടപ്പെടുന്ന ഒരു പെണ്ണിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നു ഒരു ചെറുക്കനാണെങ്കിൽ കുറേ കാലം കഴിയുമ്പം അതിനെ വേണ്ടെന്നു വെക്കുമ്പം വേറൊരെണ്ണത്തിനെ അന്വേഷിച്ചു നടക്കുന്നു അങ്ങനെ അവരങ്ങനെ ജീവിത കാലം മുഴുവൻ അങ്ങനെ നടക്കുന്നുള്ളു അവർക്ക് മക്കൾ വേണ്ട എന്നൊക്കെയുള്ളൊരു തീരുമാനം അവിടെ എൻ്റെ എൻ്റെ മകളുടെ ഭർത്താവൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ് അവൾ അവൻ അവനുടനെ വീട്ടിൽ വന്നു പറയുമായിരുന്നു അവരുടെ കൂട്ടുകാരെല്ലാം ആ ഓഫീസിലെ ചർച്ചയിതാണ് അവർക്കങ്ങനെ മക്കൾ വേണ്ടെന്നുള്ളതാണവർ പറയുന്നത് എന്നു പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അതു തന്നെ നിന്നു പോകുമല്ലോ പിന്നെ എങ്ങനെയാണ് അടുത്ത തലമുറ തന്നെ ഇല്ലാതായി പോകില്ലെ ഞാൻ പറഞ്ഞവർക്കതു വേണ്ട അതു പിന്നെ ഭാവിയിലെ ഗവർമെൻ്റെന്തെങ്കിലും തീരുമാനമെടുക്കുമായിരിക്കും അങ്ങനെയൊക്കെയാണിപ്പം നടന്നു പോയ്ക്കൊണ്ടിരിക്കുന്നതെന്നു പറയുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒത്തിരി വ്യത്യാസം വരുത്തണമെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ കാര്യം തന്നെ എടുത്താൽ